ചിത്രരചന ആളുകൾക്ക് രോഗശാന്തി നൽകുമോ എന്നു അറിയത്തില്ല എങ്കിലും നമുക്ക് ചിത്രം വരയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരു മനസ്സിന് ഒരൂ ആശ്വാസവും മനസ്സിന് ഒരു ഒരൂ സമാധാനവും കിട്ടും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ വരയ്ക്കാനായിട്ട് നമ്മൾ വരച്ചു കഴിയുമ്പോഴത്തേക്കും അതിനെ ഒരൂ സമാധാനം ഒരു സന്തോഷം ഒക്കെ കിട്ടുമ്പോൽ തന്നെ നമുക്ക് ചിലപ്പം രോഗശാന്തി നൽകുമായിരിക്കും എങ്കിൽ പോലും നമ്മൾ പടം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അത് വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ വരച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഒരു ഒരു എന്താണ് പറയുക നമുക്ക് ഒരു നമുക്ക് തന്നെ ഒരു ഇഷ്ടവും സമാധാനം ഒരു സന്തോഷം തോന്നും ആ സന്തോഷത്തിൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങൾ മാറും പിന്നേ എന്നു പറയുമ്പം നമുക്ക് ചിത്രരചന കൊണ്ട് ചിത്രം വരച്ചു കഴിയുമ്പം നമുക്ക് അയ്യോ എനിക്ക് ഇത്രയും വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നോ എന്ന ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും വരച്ചു വരയ്ക്കും വരച്ചുണ്ടായി വരച്ചു കൊണ്ടേ ഇരിക്കും നമ്മൾ ഇപ്പം ഒരു ചിത്രം വരച്ചു നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കാരണം നമ്മൾ ചിത്രം വരച്ചു നമുക്ക് അത് ഭാവിയിൽ നമുക്ക് ഒരു ജോലി വേണം നമുക്ക് ചിത്രം വരച്ചും കാശുണ്ടാക്കാം അപ്പം അതുപോലെ തന്നെ നമുക്ക് ചിത്രം വരയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരു പല കമ്പനികളിലും ഡിസൈനർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റീര്യർ വർകൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻറ്റീര്യർ ആയിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പല ജോലി മേഖലകളിലേക്കും നമുക്ക് കയറാനായിട്ട് നമുക്ക് ഈ ഈ ഒരു ചിത്രകലകൊണ്ട് സാധിക്കും പിന്നെ ചിത്രം വരയ്ക്കാൻ തന്നെ ഏറ്റവും കൂട്തലും നമുക്ക് ക്ഷമ വേണം ആ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ വരയ്ക്കുന്നത് കമ്പ്ലീറ്റ് ചെയ്യാൻ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമെ നമുക്ക് ചിത്രം വരയ്ക്കുന്നത് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കുക എന്താണ് വരയ്ക്കേണ്ടത് എന്ന ഒരു വ്യക്തമായ ഒരു വ്യക്തമായ ഒരു ബോധമുണ്ടായിരിക്കണം കാരണം നമക്ക് ഒരു ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം ആ ഒരു മയത്തിൽ വരയ്ക്കാൻ പറ്റൂ നമുക്ക് നമ്മൾ വരക്കുന്ന ചിത്രത്തിന് ജീവൻ ഉള്ളത് പോലെ ആയി തോന്നിച്ചെങ്കിൽ മാത്രമേ അതൊരു ചിത്രമായി മാറുകയുള്ളു വെറുതെ ഒരു വര വരച്ചാൽ പോലും അത് അതിന് ഒരു ജീവനുണ്ട് എന്നൊരു തോന്നൽ വരുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ചിത്രം ചിത്രം വരയ്ക്കുന്നതിൽ ഒരു ഗുണവും ഉണ്ടാവത്തുള്ളു അപ്പം നമക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയാനായിട്ട് ക്ഷമ വേണം നമുക്ക് വരയ്ക്കുന്നത് എന്തിനെ പറ്റിയാണ് എന്താണ് വരയ്ക്കുന്നത് എന്താണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരൂ സന്ദേശം എന്താണ് അതെല്ലാം നോക്കി നമ്മൾ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ചിത്രം വരയ്ക്കുന്നതിലൂടെ നമുക്ക് ചിത്രം വരയ്ക്കുന്നതിൽ നമുക്ക് വേണ്ട ഒരു കാര്യം പിന്നെ ഗുണങ്ങളെന്ന് പറയാനായിട്ട് ചിത്രം വരയ്ക്കുന്നതിലൂടെ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് ചിത്രം വരച്ചു കഴിഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് ആണെങ്കിൽ പോലും ഒരു ചിത്രം വരച്ചു ഒരാളെ ആളെ വരയ്ക്കാനാണ് എങ്കിൽ പോലും ചിത്രം വരച്ചു നമുക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നീട് എന്നു പറയുമ്പം നമുക്ക് ഓരോ കമ്പനികളും ചിത്രം വരയ്ക്കുന്നത് വരച്ചു അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നു കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ കമ്പനികളും നമുക്ക് കയറാനായിട്ട് സാധിക്കും കാരണം അവിടത്തെ അവിടെ ജോലിക്ക് ചെയ്യാൻ ജോലിക്ക് നിൽക്കാനായിട്ട് പറ്റും ഇൻറ്റീര്യർ വർകൊക്കെ കിട്ടുന്നതിലൂടെ നമുക്ക് നിൽക്കും പിന്നെ അതുമല്ല ഡ്രസ്സുകൾ ആണെങ്കിൽ പോലും ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു പടം വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയെല്ലാം അതൊരു മോഡേൺ ലുക്കിലോട്ട് മാറ്റമെന്ന് നമക്ക് അറിവുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഈ ചിത്രരചന കൊണ്ട്